യു പി എസ് സി പരീക്ഷകളൊക്കേ അതുപോലെതന്നേ യു പി എസ് സി പരീക്ഷ അതുപോലെതന്നെ യു എസ് എസ് എൻ എസ് എസ് എന്നൊക്കേ പറഞ്ഞ് ഒരുപാട് പരീക്ഷകൾ നമ്മുടെ നാട്ടിൽ സ്കൂളുകളിൽ നടക്കുന്നുണ്ട് അപ്പം അതിനൊക്കേ വാർത്ത മാധ്യമങ്ങൾ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന് തൈ വിദ്യർക്ക് സഹായി വിദ്യാർത്ഥികൾക്ക് സഹായിക്കുന്നത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിലൂടെ ആ പരീക്ഷ നടക്കുന്ന സമയമാകുമ്പം അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നേ മുമ്പ് വർഷം നടന്ന ക്വസ്റ്റ്യ ക്വസ്റ്റ്യൻസ് പടിപ്പുര എന്ന് പറഞ്ഞ് പത്രത്തിലൂടെ നമു പടിപ്പുര എന്ന് പറഞ്ഞ ഇതിൽ കൂടി തന്നെ നമുക്ക് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നേ എങ്ങനത്തേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതുപോലെ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നൊക്കേ അവർക്ക് അത് വായിക്കുന്നതിലൂടെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ